കൂടുതലായിട്ടും നേരിടുന്ന പരിസ്ഥിതി വെല്ലുവിളികൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആണെങ്കിൽ എന്താണ് പറയുക വയലുകളിലൊക്കെ കൃഷി ചെയ്യുന്നിടത്തൊക്കെ വെള്ളം കയറുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വരമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് തന്നെ എന്താണ് പറയുക ക്ലിയർ ചെയ്ത് നല്ല രീതിക്ക് ഉറപ്പുള്ള രീതിയിലാക്കി വയ്ക്കുകയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത് വരമ്പ് നല്ല രീതിക്ക് വരുമ്പോൾ കൂടുതൽ എന്താണ് പറയുക കൃഷിയിടത്ത് ഇങ്ങനെ ചെളിയോ മണലോ അങ്ങനെ ഒന്നും വന്ന് അടിഞ്ഞുകൂടാതിരിക്കുന്നതും നല്ലൊരു ഗുണം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എന്താണ് പറയുക ഈ ഈ കൃഷി ചെയ്യുന്ന ഇഞ്ചി കപ്പ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എന്താണ് പറയുക കൂടുതലായിട്ടും പരിസ്ഥിതി പ്രശ്നം വരാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മഴയൊക്കെ പെയ്യുമ്പം മണ്ണൊലിപ്പ് അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ കൂടുതലും കൃഷിയിടങ്ങളിലായാലും അവിടെ ഒക്കെ എന്താണ് പറയുക മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കുന്നത് കൊണ്ടും മണ്ണൊലിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കൂടുതലായിട്ട് വരുന്നില്ല ഇതൊക്കെ നമ്മൾ എന്താണ് പറയുക കൃഷിയിടത്തായാലും നമ്മുടെ പ്രദേശത്തൊക്കെ കൂടുതലായിട്ടും നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ വേറെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പരിസ്ഥിതിയിൽ വരുന്ന കാറ്റൊക്കെ അടിച്ചുകഴിഞ്ഞാൽ വാഴ പോലെ ഉള്ളവയൊക്കെ പിന്നെ മരത്ത് മരത്തിന്റെ ചില്ലകളൊക്കെ ഒടിയുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് പറയുക ഒരു വള്ളി ഇട്ട് കെട്ടി അങ്ങനെയൊക്കെ നമ്മൾ ഇത് എന്താണ് പറയുക രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് പരിസ്ഥിതിയിൽ വരുന്ന എന്താണ് പറയുക നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് അവയൊക്കെ നേരിടാൻ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ശ്രമിക്കുന്നത്